ഹലോ ആരായിരുന്നു

എന്തായിരുന്നു രണ്ട് ദിവസമായല്ലെ വീട്ടില് വേറെ ആർക്കെങ്കിലുമുണ്ടോ അവർക്കൊക്കെ കുറഞ്ഞോ എന്തെങ്കിലും ടാബ്ലറ്റ് അങ്ങനെ എന്തേലും എടുക്കുന്നുണ്ടോ കഴിച്ചായിരുന്നോ കാണിച്ചതാ കുറവില്ല പാരസെറ്റമോളാണോ തന്നത് എന്നിട്ട് പനി കുറവില്ല ഒട്ടും കുറവില്ല വീട്ടില് പിന്നെ ചെറിയ കുട്ടി അങ്ങനെ എന്തെങ്കിലുമുണ്ടോ കുട്ടിക്കെന്തെങ്കിലും പനി എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ ഒക്കെ എന്തേലും മഴ നനയുമോ അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നോ ചെറുതായി അങ്ങനെ പനി ആയ സമയത്താണോ അതോ പനിക്ക് പനി തുടങ്ങുന്നതിന് മുന്നേയാണോ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും പിന്നെ അങ്ങനെയാണെൽ നിങ്ങള് ഒരു ദിവസം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് ഒന്ന് വരണം ഒന്ന് ബ്ലഡ്ഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ വയറ് വേദന അങ്ങനെ എന്തെങ്കിലും

അ പാരസെറ്റമോള് കുടിച്ചിട്ടും കുറവില്ലല്ലേ എത്രയാണ് അഞ്ഞൂറിൻ്റെയാണോ പാരസെറ്റമോള് കുടിച്ചത് ഓക്കെ ഡോളോ ആണോ അതോ പാരസെറ്റാമോളാണോ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ മൂന്ന് നേരം കറക്റ്റ് കഴിച്ചായിരുന്നോ പാരസെറ്റാമോള് ഭക്ഷണത്തിന് ശേഷമാണോ കഴിച്ചത് അങ്ങനെയാണെങ്കില് ഇപ്പം നാളെയും കൂടെ ഒന്ന് ജസ്റ്റ് മൂന്ന് നേരം നല്ലോണം അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പാരസെറ്റമോള് കുടിച്ചു നോക്ക് എന്നിട്ട് എന്തെങ്കിലും മാറ്റമില്ലെങ്കില് ഒന്ന് പിന്നെ യൂറിനും ബ്ലൂഡും ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നിങ്ങോട് വന്നാൽ മതി അങ്ങനെ ആണേൽ തിങ്കളാഴ്ച എങ്ങാനും വന്നാൽ മതി എന്നാൽ ബുക്ക് ചെയ്യണോ വരുന്നുണ്ടോ എന്താ അങ്ങനെ ആണേൽ ഞാൻ ബുക്ക് ചെയ്ത് വെക്കാം ഞാൻ നിങ്ങളെയൊരു പിന്നെ തിങ്കളാഴ്ച്ച ഒരു നാല് മണി നാല് മണിക്ക് തൊട്ടാണ് നോക്കുക എന്തായിരുന്നു പേരെന്തായിരുന്നു എവിടെ സ്ഥലം എവിടെയാണ് മാനന്തവാടിയല്ലേ അങ്ങനെ ആണേൽ നിങ്ങള് തിങ്കളാഴ്ച്ച വന്നോളൂ ആ ടെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് കുറവില്ലെങ്കില് വന്നാൽ മതി നമ്മള് വന്നിട്ടുണ്ടങ്കില് പനിക്ക് എന്തായാലും പാരസെറ്റമോളെ കൊടുക്കുകയുള്ളു സാധാരണ പാരസെറ്റമോള് കുടിച്ചിട്ടുണ്ടങ്കില് പിന്നെ തലവേദനയൊക്കെ കുറയേണ്ടതാണ് അപ്പോൾ എന്താന്നറിയില്ലലോ അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്നാൽ ഓക്കെ എന്നാൽ അങ്ങനെ വന്നാൽ മതി ഓക്കെ ഓക്കെ